ഞാനും അതുപോലതന്നെ ഞങ്ങളുടെ പ്രദേശത്തുള്ള ആളുകളും ശക്തമായി വിശ്വസിക്കുന്ന ചില അന്ധവിശ്വാസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ആരും ഇപ്പോഴത്തെ കാലത്ത് അന്ധവിശ്വാസങ്ങളെ വിശ്വസിക്കാറില്ല എങ്കിലും ചില പ്രധാനപ്പെട്ടത് എടുത്തു പറയുകയാണെങ്കിൽ കട്ടിലിലിരുന്ന് കാലാട്ടി കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് ദോഷമാണ് അതുപോലതന്നെ വൈകുന്നേര സമയങ്ങളിൽ ശൂളമടിച്ചാൽ പാമ്പ് വരും അതുപോലതന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് വൈകുന്നേര സമയങ്ങളിൽ അല്ലെങ്കിൽ സന്ധ്യാസമയത്തിനുശേഷം വീടിനകത്തിരുന്ന് നഖം വെട്ടുമ്പോൾ അത് വീട്ടിൽ കടം കൊണ്ടുവരും എന്ന് പറയുന്നതും ഞങ്ങളുടെ പ്രദേശത്ത് പൊതുവായി കേൾക്കുന്ന് ഒരു അന്ധവിശ്വാസമായി എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലതന്നെ പല രീതിയിൽ ഒരു മൂത്തയാൾക്കാരുടെ കാല് ചവിട്ടിയാൽ അത് ദോഷം വരുത്തുമെന്നും ബുക്കിലോ പുസ്തകത്തിലോ എന്തിലെങ്കിലും ചവിട്ടിയാൽ അത് എന്തെങ്കിലും തരത്തിലുള്ള അപകടവോ അല്ലെങ്കിൽ പഠനത്തിൻ്റെ കുറവ് കൊണ്ടുവരും എന്നുള്ള തരത്തിലുള്ളതൊക്കെ അ അന്ധവിശ്വാസങ്ങളിപ്പളും നിലനിൽക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളുടെ നിരയെടുത്ത് നോക്കുകയാണെങ്കിൽ അധികമായി തന്നെ ഉണ്ടെന്ന് പറയാം എന്നാൽ ഇന്നത്തെ കാലത്ത് വളരെയധികം മാറ്റങ്ങളാണ് അന്ധവിശ്വാസങ്ങളുടെ കാര്യത്തിൽ വന്നിരിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക് പീരീഡ്സ് സമയത്ത് സന്ധ്യാസമയത്ത് മുറ്റത്തിറങ്ങാൻ പറ്റില്ല അതുപോലെ തന്നെ പൂ പറിക്കാൻ പറ്റില്ല ചെടി നനയ്ക്കാൻ പറ്റില്ല ചെടി നടാൻ പറ്റില്ല ചെടിയിൽ തൊടാൻ പറ്റില്ല ചെടിയുടെ ഇല പറിക്കാൻ പറ്റില്ല തുടങ്ങിയിട്ടുള്ള പല വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിൽ നില നിന്നിരുന്നു ഇതുകൂടാതെ തന്നെ പെൺകുട്ടികൾ പിരീഡ്സാവുന്ന സമയത്ത് കട്ടിലിൽ കിടക്കാൻ പാടില്ല നിലത്തു കിടക്കണം അതുപോലെ തന്നെ വീട്ടിൽ നിന്നും മാറി നിൽക്കണം തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾ പണ്ടുകാലത്ത് വളരെയധികം പ്രചരിച്ചിരിക്കു പ്രചരിച്ചിരിക്കുകയും അതുപോലെതന്നെ എല്ലാവരും തുടർച്ചയായി അനുകരിച്ചിരുന്നൊരു കാര്യവുമായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് എടുത്തു നോക്കുകയാണെങ്കിൽ ആളുകൾ അത് വളരെ കുറവായിട്ട് മാത്രമെ അതിനെ കാണുന്നുള്ളു അതുപോലെ തന്നെ ആളുകൾക്ക് ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ കാര്യങ്ങളോട് ഒട്ടും താല്പര്യമില്ല എന്നുള്ളതും വലിയൊരു വസ്തുത തന്നെയാണ് ആളുകൾ അതിൽ താല്പര്യം പ്രകടിപ്പിക്കാറില്ല അതുപോലതന്നെ ആളുകൾ പുതിയ രീതിയിലേക്ക് അല്ലെങ്കിൽ പുതിയ ചിന്താഗതി അവരുടെ ഉൾത്തളങ്ങളിൽ ഏറ്റെടുത്തു കൊണ്ട് തന്നെ അതിനെ വിശ്വസിച്ചു പോകുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് വളരെയധികം മാറ്റങ്ങള് നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ ചുറ്റുപാടുള്ള ജീവിതത്തിലും കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ പ്രധാനമായി എൻ്റെ പ്രദേശത്ത് അല്ലെങ്കിൽ ഞാൻ കേട്ടിരിക്കുന്ന ചില ശക്തമായ അന്ധവിശ്വാസങ്ങളാണ് ഇവയെല്ലാം